ഞങ്ങളുടെ പ്രദേശത്തങ്ങനെ നാടോടി ഗാനങ്ങളാക്കിയിട്ടുണ്ടെന്നെനിക്ക് തോന്നുന്നില്ല കാരണം ആൾക്കാര് കൂടുതലും അവരുടെ സിനിമകളിലൊള്ള ഗാനങ്ങളക്കെയാണ് പാടാറുള്ളത് പ്രത്യേകിച്ച് ഈ ഉത്സവങ്ങളൊക്കെ വരുമ്പോഴാണ് നാടോടി ഗാനങ്ങള് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊക്കെ കാണാൻ സാധിക്കുന്നു എനിക്കങ്ങനെ നാടോടി ഗാനങ്ങള് ഞാനധികം ശ്രദ്ധിക്കാറില്ല എന്നാൽ പോലും ഇങ്ങനെ ആൾക്കാർ പറയുന്നതൊക്കെ കേൾക്കാം എന്നാൽ ഇപ്പോൾ അത് നമ്മുടെ സംസ്കാരത്തെ പ്രധാനപ്പെട്ടൊരു സംഗതി തന്നെയാണ് കാരണം നമ്മുടെ നാടോടി ഗാനങ്ങളോട് നമ്മുടെ ആ ഒരു തദ്ദേശീയമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തെ നമ്മള് സംരക്ഷിക്കുകയാണ് കാരണം നമ്മുടെ പുതിയ തലമുറ ഇതൊക്കെ കേട്ടുക കേൾക്കുക അവരെ കേൾപ്പിക്കുക എന്നത് തന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ ഒക്കെ ഒരു നാടോടി സംഗീതം ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പഴയ മാതാപിതാക്കൾ അല്ലെങ്കിൽ വല്യപ്പച്ചൻമ്മാരും വല്യമ്മച്ചിമാരും മുത്തശ്ശിമാരും മുത്തശ്ശൻമാരൊക്കെ ഈ നാടോടി ഗാനങ്ങളെക്കുറിച്ച് വാചാലരാകുന്നത് നമ്മള് കാണാൻ സാധിക്കുന്നു കാരണം അവരുടെ കാലഘട്ടത്തിലക്കെയാണ് കൂടുതല് നാടോടി ഗാനങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോൾ ഇല്ലെന്നല്ല എന്നാൽപോലും അവരുടെ കാലഘട്ടത്തിലാണ് കൂടുതലും ഇത് കാണാൻ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അവര് അവരുടേതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറയും അത് കേൾക്കുമ്പം ചില ആൾക്കാരൊക്കെ ഈ നാടോടി ഗാനങ്ങളൊക്കെ പാടാൻ വളരെ വൈവിധ്യം നേടിയ ആൾക്കാരൊക്കെയാണ് അവരത് വലിയ രീതിയില് പാടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഈ നാടോടി ഗാനങ്ങള് നമ്മുടെ പ്രദേശത്ത് പോയി ചില പ്രദേശത്തൊക്കെ വലിയ രീതിയിലുണ്ട് പ്രത്യേകിച്ചെനിക്ക് തോന്നിയ ആലപ്പുഴ അങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ കുറെ പ്രദേശം തൃശ്ശൂർ പ്രദേശങ്ങളിലൊക്കെ ഈ നാടോടി ഗാനങ്ങളൊക്കെ വലിയ രീതിയിൽ കാണും